കേരളത്തില് എന്ന് മാത്രവല്ല ഇന്ത്യയിൽ തന്നെ ആയാലും നമ്മൾക്ക് ഒര് വിദ്യാഭ്യാസ സമ്പ്രദായം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുസ്തകത്തിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് അതേപോലെ പഠിച്ച് കുറെ കാണാപ്പാഠം പഠിച്ച് അങ്ങനൊക്കെയാണ് നമ്മള് പഠിക്കുന്നത് പക്ഷേ ഇപ്പം നിലവിലുള്ളത് അങ്ങനെതന്നെയാണ് അതായത് പ്രാക്റ്റിക്കലായിട്ട് നമ്മള് പഠിച്ചതൊന്നും നമുക്ക് സമൂഹത്തിലേക്കെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന് ചോദിച്ചാൽ മെയ്നായിട്ടും അധ്യാപകർക്ക് എന്താണ് പുസ്തകത്തിൽ നിന്ന് ഉപരിയായിട്ട് നമ്മുടെ ലൈഫിലെങ്ങനെയാണോ ഈ പഠിച്ച കാര്യങ്ങളുപയോഗിക്കാൻ പറ്റുക മറ്റുള്ളവർക്കിതെങ്ങനെയാണോ ഹെൽപ്പാവുക അതേപോലെതന്നെ നമ്മുടെ ഇപ്പം സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം വേണം നമ്മളെക്കൊണ്ട് നമ്മള് പഠിക്കുന്നത് അതുവഴി നമുക്ക് കുറച്ച് എന്താണ് സൊസൈറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് നമുക്ക് നമ്മള് പഠിച്ച കാര്യങ്ങള് നമുക്ക് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരിത് തന്നെയാവണം ഇപ്പം അധ്യാപന വൈവിധ്യം എന്ന് തന്നെ ആണെങ്കിൽ തന്നെ നമ്മളിപ്പം എന്താണ് ഏഴാം ക്ലാസ് വരെ നമ്മള് പലപല സബ്ജറ്റുകള് കുറെ പ വിഷയങ്ങള് പഠിക്കുന്നുണ്ട് പക്ഷേ നമ്മള് എട്ടിലേക്കാവുമ്പോൾ മെയിനായിട്ട് സയൻസ്സ് മാത്സ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതെ എന്തായാലും നമ്മൾ ഹയർ സ്റ്റഡീസിലെത്തുമ്പം നമ്മുടെ മെയിനായിട്ടുള്ള സബ്ജക്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ ഒര് പത്താം ക്ലാസ് വരെ എങ്കിലും തന്നെ ജെനറലായിട്ടുള്ള സ്റ്റഡീസ്സ് ഇപ്പം ചെറുപ്പ ചെറിയ ക്ലാസുകളിൽ നമ്മള് ജി കെ പോലുള്ള സബ്ജറ്റുകള് പഠിക്കുന്നുണ്ടെങ്കില് പ്ലസ് ടു ഒക്കെ ആകുമ്പോത്തേക്കും നമുക്ക് ഇപ്പം ഒരു സയൻസ് ഗ്രൂപ്പെടുത്ത ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ജി കെ ഒന്നും തീരെ അറിയില്ല എന്താണ് സൊസൈറ്റീൽ നടക്കുന്ന ന്യൂസ്സ് പോലും വായിക്കുന്നില്ല അങ്ങനെ ഒക്കെവെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജെനറലായിട്ട് നമ്മുടെ ചുറ്റ്പാടും എന്താ നടക്കുന്നത് എന്നറിയാനുള്ള ഒരിതും അതേപോലെ തന്നെ നമ്മള് പഠിച്ച കാര്യങ്ങള് നമ്മുടെ ലൈഫില് പ്രാക്റ്റിക്കലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയൊരു സാഹചര്യമൊക്കെ നമുക്ക് റെഡിയാക്കണം മെയിനായിട്ട് പിന്നേ ഗെവണ്മെൻട് സ്കൂള്കളിൽ ആണെങ്കിൽ തന്നെ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂസ്സുണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മള് ശ്രദ്ധിക്കേണ്ടതാണ്